നമ്മൾ ഈ നൃത്തം എന്നു പറയുന്ന അത്ര മോശമായിട്ടുള്ള കാര്യം ഒന്നും അല്ല എന്താണെന്ന് ചോദിച്ചാൽ ഇപ്പോൾ നമ്മൾ സാമ്പത്തികമായിട്ട് പുറകോട്ട് നിൽക്കുന്നവർക്ക് നൃത്തം പഠിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ നമുക്ക് പുറത്തുപോയി പഠിക്കുമ്പോൾ നല്ല പൈസച്ചിലവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതേസമയം നമുക്ക് ഒരു ഫോണും കാര്യങ്ങളും കയ്യിൽ ഉണ്ടെങ്കിൽ നമുക്ക് യൂട്യൂബിൽ നോക്കി നൃത്തം പഠിക്കാൻ പറ്റും എന്താ ഇപ്പോൾ പുറത്തുപോയി പഠിക്കുന്നത് കൊള്ളില്ല എന്നല്ല പറയുന്നത് ഓൺലൈനായിട്ട് പഠിക്കുന്നതിലുപരി പുറത്തുപോയി പഠിക്കുന്നത് തന്നെയാണ് നല്ലത് പക്ഷേ സാമ്പത്തികമായി പിന്നോട്ട് നിൽക്കുന്നവർക്ക് നൃത്തം എന്നു പറയുന്ന നൃത്തം എന്നത് പഠിക്കണമെങ്കിൽ ഒരു യൂട്യൂബിൽ കാണാനും സാധിക്കുന്നുണ്ടെങ്കിൽ കളിക്കാനും പറ്റും അത് അവർക്കൊരു സഹായകരവുമാണ് അതുപോലെതന്നെ നമ്മുടെ ഈ കൊറോണ കാലഘട്ടത്തിലൊക്കെ നമുക്ക് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാനും ഒന്നിനും പറ്റത്തില്ലായിരുന്നു അപ്പോഴൊക്കെ നമുക്ക് പുറത്തുപോയി എന്താ നൃത്തമെന്നു പറയുന്നത് കളിക്കാനോ പഠിക്കാനോ

ഒക്കെ പുറത്തുപോയി പഠിക്കുകയാണെങ്കിൽ കുറച്ചുകൂടിയും നന്നായിട്ട് പഠിക്കാൻ പറ്റും എന്താ ഓൺലൈനായിട്ട് പഠിക്കുന്നത് കൊള്ളില്ല എന്നല്ല പറയുന്നത് നമുക്ക് അതൊരു നമ്മുടെയൊരു ഹോബിയും നമ്മുടെയൊരു ഇഷ്ടത്തോടെ എന്താ യൂട്യൂബൊക്കെ നോക്കി പഠിക്കുകയാണെങ്കിൽ നമുക്ക് അത്രയും അത്രയും നല്ലൊരു ഇത് നമുക്ക് പറയാൻ പറ്റില്ല ഡാൻസ് കളിക്കുന്നത് എത്രയോ ഭംഗിയുള്ളൊരു സംഭവമാണ് അപ്പോൾ ആ കഴിവ് നമുക്ക് ഓരോരുത്തർക്കും കിട്ടുകയാണെങ്കിൽ അത്രയും മനോഹരമാണ് ക്ലാസിക്കൽ ഡാൻസെന്നു പറയുന്നത് നമ്മുടെ സിനിമാറ്റിക് ഡാൻസൊന്നും കൊള്ളില്ല എന്നല്ല ക്ലാസിക്ക് ഡാൻസൊക്കെ കളിക്കണമെങ്കിൽ നമുക്കൊരു പ്രത്യേക കഴിവും നമുക്കതിനോട് ഒരു ഒരു പെർഫെക്ഷനും അതുപോലെതന്നെ നമുക്കൊരു എന്താണ് ഒരു സ്നേഹവും ഒരു സന്തോഷവും ഒക്കെക്കൂടിയാണ് നമ്മൾ ആ ഡാൻസ് കളിക്കാൻ വേണ്ടത് നൃത്തം എന്നു പറയുമ്പോൾ നമ്മളിൽ ചിലവർക്കൊക്കെ ചിലരൊക്കെ കളിക്കുന്ന കാണുമ്പോൾ നമുക്ക് എന്താ പറയുക നമുക്ക് ഒരു പെട്ടെന്ന് കാണുമ്പോൾ എന്താ നമുക്കൊരു എന്താ പറയുക പെട്ടെന്ന് കാണുമ്പോൾ നമുക്ക് എന്താ നമുക്ക് എന്താണെന്ന് മനസ്സിലാവില്ല എന്താണെന്നു ചോദിച്ചാൽ അത്ര അതിമനോഹരമായി ഇവരെങ്ങനെ എങ്ങനെ കളിക്കുന്നു എന്നായിരിക്കും നമ്മൾ ആലോചിക്കുക ചിലവരൊക്കെ ഈ യൂട്യൂബിലും ഒക്കെ കണ്ടു പഠിച്ച് കളിക്കുമ്പോൾ എത്ര മനോഹരമായിട്ടാണ് അവരുടെ ഓരോ നൃത്തച്ചുവടുകളും അവരുടെ അവർ കാണിക്കുന്നതൊക്കെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും പുറത്തുപോയി പഠിച്ച അത്ര നല്ല ഇതായിട്ട് പഠിച്ച് കിട്ടുന്നതൊക്കെ ആണെന്നാണ് നമ്മൾ വിചാരിക്കുക ഓൺലൈനായിട്ട് കളിക്കുമ്പോൾ അത്ര പെർഫെക്ഷൻ കിട്ടിയെന്ന് ചിലപ്പോൾ വരില്ല പക്ഷേ നമ്മൾ പുറത്തുപോയിട്ട് കളിക്കുകയാണെങ്കിൽ എന്താ ഓൺലൈനായിട്ട് കളിക്കുന്നതിൽ ഉപരി അത്ര മനോഹരമായിട്ട് നമുക്ക് നൃത്തം കളിക്കാൻ പറ്റും